ചെറുപ്പം തൊട്ട് എനിക്ക് ക്രിക്കറ്റിനോട് ഭയങ്കര താല്പര്യമാണ് ഞാൻ കളിക്കാറുണ്ട് വീട്ടിൽ ഏട്ടന്മാരുടെയൊക്കെ ഒപ്പം അല്ലാതെ പുറത്ത് എവിടേയും പോയി കളിക്കാറില്ല എനിക്ക് എൻ്റെ അച്ഛൻ അച്ഛനിൽ നിന്നാണ് ക്രിക്കറ്റ് ക്രിക്കറ്റിനോട് ഇത്ര സ്നേഹം അച്ഛൻ അച്ഛന് അച്ഛന് മാത്രമല്ല അമ്മയ്ക്കും ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മ പണ്ട് കുറേ ക്രിക്കറ്റ് കളിയൊക്കെ കണ്ടിട്ടുണ്ട് ഞാനും ഞാനും കാണാറുണ്ട് എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ധോണിനെയാണ് അതൊക്കെ ക്രിക്കറ്റ് കണ്ട് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പലവട്ടം എൻ്റെ ഏട്ടന്മാരോടൊപ്പം ഞാൻ കളിച്ചിട്ടുണ്ട് ക്രിക്കറ്റ് അങ്ങനെ അത്ര വലിയ നന്നായിട്ട് കളിക്കുന്നൊന്നുമില്ല പക്ഷെ കുഴപ്പമില്ലാതെ അത്യാവശ്യത്തിന് നന്നായിട്ട് കളിക്കാനൊക്കെ എനിക്ക് അറിയാം അങ്ങനെ പുറത്തു പോയി കളിക്കാൻ എനിക്ക് അങ്ങനെ ചാൻസസൊന്നും കിട്ടിയിട്ടില്ല എൻ്റെ സ്കൂളിലായാലും അങ്ങനെ സ്പോർട്സ് ടീമും ഒന്നും ഉണ്ടായിരുന്നില്ല ക്രിക്കറ്റ് ടീം ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ നിന്നായാലും അങ്ങനെ അവിടെ പുറത്തായാലും അങ്ങനെ അങ്ങനെ എവിടേയും അങ്ങനെ കളിക്കാനൊന്നും വിട്ടിട്ടൊന്നുമില്ല അതിപ്പം ഞാൻ അങ്ങനെ പുറത്തു പോയിട്ട് കളിക്കണമെന്ന് അപ്പോൾ വിചാരിച്ചിട്ടും ഇല്ല ഇപ്പോഴും അങ്ങനെ എനിക്ക് അങ്ങനെ എവിടെ എങ്കിലും പുറത്ത് പോയിട്ട് ഭയങ്കര പ്ലെയർ ആവണം അങ്ങനത്തെ ആഗ്രഹങ്ങൾ ഒന്നുമില്ല പക്ഷെ ആ രസമാണ് കളി കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് അതേപോലെ നീന്താൻ എനിക്ക് അറിഞ്ഞു കൂട എനിക്ക് നീന്തൽ ഞാൻ ഇതുവരെ ആയിട്ട് പഠിച്ചിട്ടില്ല എന്നെ പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് ഞാൻ സ്വിമ്മിംഗ് ക്ലാസ്സസ്സിനൊക്കെ പോയിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് വട്ടം ഒന്ന് രണ്ട് ക്ലാസ്സൊക്കെ പോയിട്ടുള്ളൂ പക്ഷേ അവിടെ ഒക്കെ പോയിട്ട് ഒന്നും എനിക്ക് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല നീന്താൻ രണ്ടു മൂന്ന് വട്ടം ഇങ്ങനെ എന്താണ് പറയുക അങ്ങനെ നീന്താനൊക്കെ നോക്കി പക്ഷേ എനിക്ക് നീന്താൻ പറ്റിയിട്ടില്ല ഞാൻ ശരിയായിട്ട് നീന്താൻ എനിക്കറിയില്ല എൻ്റെ അച്ഛന് എപ്പോഴും എവിടെയെങ്കിലും ഇതുപോലെ കുളത്തിലൊക്കെ പോവുകയാണെങ്കിൽ എന്നെ കൂട്ടിയിട്ടാണ് പോവുക എന്നിട്ട് എന്നെ നീന്താനൊക്കെ പഠിപ്പിക്കാൻ നോക്കാറുണ്ട് പക്ഷേ എനിക്ക് പക്ഷേ നീന്തൽ പഠിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ ആയിട്ടും പഠിക്കാൻ പഠിച്ചിട്ടുമില്ല പക്ഷേ പഠിക്കാൻ നോക്കിയിട്ടും പഠിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയെക്കെ എന്താണ് പറയുക നീന്താൻ എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ എന്താണ് പറയുക എനിക്ക് പേടിയാണ് എനിക്ക് നീന്താൻ എനിക്ക് പേടിയാണ് എനിക്ക് എന്തേലെങ്ങാനും മുങ്ങിപ്പോകുമോ അങ്ങനത്തെ ഒക്കെ ഒരു പേടി കാരണമാണ് തോന്നുന്നു എനിക്ക് നീന്താൻ ഞാൻ അങ്ങനെ പോയിട്ടില്ല പിന്നെ ഇതാക്കിയിട്ടില്ല എന്നെ നിർബന്ധിപ്പിച്ച് നീന്തെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ പറ്റുന്ന പോലെ നോക്കാം